ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയാണ് ഇസ്ലാം മതം എന്നു പറയുമ്പോൾ ലോകത്തിൽത്തന്നെ ഏറ്റവും കൂടുതലാളുകൾ വിശ്വസിക്കുന്നൊരു മതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലശ കഴിഞ്ഞ കാലങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതലാളുകൾ വിശ്വസിക്കാൻ ശ്രമിക്കുന്നത് ഈ ഇസ്ലാം മതവിശ്വാസമാണ് ഇസ്ലാമിൽ പല ചരിത്ര പ്രധാനമായ സംഘർഷങ്ങളും യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം സംസ്കാരം സംരക്ഷണത്തിനായിട്ടുള്ള യുദ്ധങ്ങൾ പോലെ സമയങ്ങളിലുണ്ടായിട്ടുണ്ട് കഴിഞ്ഞതു പോലെ ജിഹാദ് എന്ന ആശയമാണ് സമരത്തിന് മതപഠന മായുള്ള കരാ ഒരു ഇതു പറയുന്നത് അതൊരു കടമയാണ് ഒരു മതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പോരാട്ടങ്ങളുമായി വളരെ കാലമായിത് ബന്ധപ്പെട്ടൊരു വാക്കാണ് അതുപോലെ തന്നെ ഇസ്ലാമിൽ പല പോരാളികളും ഉണ്ടായി പല കാലങ്ങളുണ്ടായിട്ടുണ്ട് കൊളോണിയൽ വിരുദ്ധ സൈനിക പ്രചരണങ്ങളും ജിഹാദുകളായിട്ട് മാറിയിട്ടുണ്ട് പഴയകാലെച്ച് നോക്ക് യുദ്ധം എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യകാലങ്ങളിലൊക്കെ യുദ്ധങ്ങളിൽ ഹൂദി ഹന്തക്ക് ഖൈബർ യുദ്ധം ഹോനൈൻ മഹാ യുദ്ധം പല യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് അതിലേറ്റവും പ്രശസ്തമായൊരു യുദ്ധമാണ് ബദറീ യുദ്ധം ഈ ബദർ യുദ്ധം എടുത്തു നോക്കുകയാണെങ്കിൽ ഓത്തു യുദ്ധമൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും ബദർ യുദ്ധം ബദറു യുദ്ധം ഈ മക്കക്കാരെ പരാജയപ്പെടുത്താൻ മുസ്ലീങ്ങളെ സഹായിച്ച മാലാഖമാരുടെ ഒരദൃശ്യ സൈന്യത്തെ അള്ളാ അള്ളായെന്നു പറഞ്ഞാൽ പടച്ചവൻ അയച്ചതായി ആണ് ഞമ്മളെ ഖുറോനിലൊക്കെ പറയണത് ബദർ യുദ്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പലേ ഏ ഡി ആറാം നൂറ്റാണ്ടിലൊക്കെയാണ് കാര്യമായിട്ട് ഇസ്ലാം മതത്തിൻ്റെ വളർച്ചയും എല്ലാം ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ യൂറോപ്പിലേക്കുള്ള ഖിലാഫത്തിൻ്റെ കടന്നു കയറ്റമൊക്കെ നമ്മുടെ ചരിത്രമെടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പടിക്കും പിന്നെനിക്കേറ്റവും ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ സംസ്കാ സംരക്ഷണത്തിലെ യുദ്ധമൊക്കെ എടുത്തു നോക്കുമ്പോൾ ബദർ യുദ്ധം അതേമാതിരി ഹന്തക്ക് യുദ്ധം അതൊക്കെ പറഞ്ഞുണ്ട് അതുപോലെ തന്നെ ഓട്ടോമൻ ഖിലാഫത്ത് നമ്മുടെ ഏ ഡി ആയിരത്തി ഇരുനൂറുകളിലൊക്കെ ലോകത്തെ ഈ ഒരു പ്രബൽ പ്രബലവരായൊരു ശക്തിയായിരുന്നു ഓട്ടോ ഉസ്മാനിയ ഹിലാഫത്ത് അതൊക്കെ മതത്തിൻ്റെ വലിയൊരു സംഘർഷങ്ങളും ഇതൊക്കെ നടന്നു പോയൊരു കാലഘട്ടമാണ്